ഞാൻ യാത്ര ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുമ്പോൾ പോകാത്ത പോവാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ അപൂർവ്വത്തിൽ അപൂർവം ആയിരിക്കും പക്ഷെ എങ്കിലും എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ മലയോര പ്രദേശങ്ങൾ പർവതങ്ങൾ ചരിത്ര സ്ഥലങ്ങളും എനിക്ക് ഇഷ്ടാണ് പിന്നെ അടുത്തത് ഈ മതപരമായതും ക്ഷേത്രങ്ങൾ അതുപോലെ പലപല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അത് അതിന് തക്ക പോകാൻ വേണ്ടി ആൾക്കാര് ശരിക്കും കൊതിക്കുന്ന ആൾക്കാരുണ്ട് ചെന്ന് പറ്റാൻ സാധിക്കാത്ത സാധിക്കാത്ത ആൾക്കാർ ഒത്തിരിപ്പേരുണ്ട് അങ്ങനെ മതപരമായ സ്ഥലങ്ങളും ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അതെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഒരു ഒരു ഇത് പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള സ്ഥലത്ത് പോകുമ്പൊളത്തേക്ക് നമ്മൾക്ക് ഒരു ഇതുണ്ടാവും ഒരു കുളിർമ ഉണ്ടാവും പ്രത്യേകിച്ച് വേളാങ്കണ്ണി വേളാങ്കണ്ണിക്ക് പോകുന്നു അത് അതേപോലെ പിന്നെ ഇപ്പോൾ ശബരിമല ഒക്കെന്നു പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഒരു ഒരു എന്തെ അതിപ്പം പോകുവാനൊക്കത്തില്ലെങ്കിലും പക്ഷെ അവിടെ ഒരു പ്രത്യേക ഒരു ഇതാണ് കാഴ്ച കാഴ്ചകളും ഒത്തിരി കാഴ്ചകളുണ്ട് പോകുന്ന വഴിക്കും ഒക്കെ അങ്ങനെ പിന്നെ പർവത ഇങ്ങനെ പർവതം ഇത് പാത മലമ്പ്രദേശങ്ങള് മലമ്പ്രദേശങ്ങളിലേക്കൊക്കെ ചെന്ന് ചെന്ന് പെട്ട് അവിടെ നമ്മള് കാണുമ്പോളത്തെക്ക് ആ ഒരു പ്രേത്യ ആ കാടും മേടും കുന്നുകളും ഒക്കെ കണ്ടു കഴിയുമ്പം നമ്മക്ക് ഒരു മനസിൻ്റെ ഒരു ആനന്ദം പ്രത്യേകിച്ച് അത് അതും അല്ല അവിടെത്തെ ആഹാര രീതികള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണത്തില്ല പക്ഷെ ആ സ്ഥലത്തോട് യോജിച്ചുള്ള ആഹാരമായിരിക്കും അത് നമുക്കിഷ്ടപ്പെടാതിരിക്കത്തില്ല ഒരിക്കലും ഇഷ്ടപ്പെടും അങ്ങനെ പോയാല് പിന്നെ അങ്ങനെ ഉണ്ട് മലപ്രദേശം കുന്നുകളും മലകളും ഒക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേക കഴിഞ്ഞിടക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോയി കുന്നുകളും മലകളും ഉള്ള സ്ഥലത്ത് പോയി ആ പച്ചപ്പും വനം പ്രദേശങ്ങളും എല്ലാം കണ്ട് നല്ല അത് നമ്മൾ തിരിച്ച് വന്ന് കഥകള് പറയാൻ വേണ്ടി ഒത്തിരിയുണ്ട് ആ ഒരു അവിടെത്തെ രീതികൾ രീതികളും ഫുള്ളായിട്ട് പറയാണെങ്കില് നല്ലപോലെ നമക്ക് പറയാനുണ്ട് സ്റ്റോറി തന്നെയാണത് അപ്പോൾ അങ്ങനെ അതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ് ഈ യാത്ര ചെയ്യേണ്ട യാത്രക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യാത്രക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന് പിന്നെ അടുത്തത് ബന്ധുക്കളുടെ വീട്ടില് ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോള് നമുക്കൊരു സഹോദരങ്ങളെ കാണുകയും പിന്നെ പരെൻ്റ്സിനേയും പ്രായമുള്ള ആൾക്കാരെയൊക്കെ വീട്ടിലുള്ളവരെയൊക്കെ കാണുന്നതൊക്കെ നമുക്ക് പ്രത്യേകമൊരു കുളിർമയാണ് മനസിനൊരാനന്ദമാണ് സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ നമുക്ക് രോഗം പോലും വരത്തില്ല അവര് അവരുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴെത്തെക്കൊക്കെ അങ്ങനെ അത് ആ രീതി ഒന്ന് അവിടെന്നൊരു ചെറിയ കട്ടൻ കാപ്പി കുടിച്ചാലും ചെറിയ കാപ്പി കുടിച്ചാലും സംഗതി നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആനന്ദം ഉണ്ടാവും ബന്ധുക്കളുടെ വീട്ടിൽ പോയാൽ അത് അത് പ്രത്യേക ഒരു ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇവിടെ യാത്ര പറഞ്ഞാല് പിന്നെ കടൽത്തീരമൊക്കെ നല്ല നല്ല നല്ല കടൽത്തീരങ്ങളാണ് ഉള്ളത് കന്യാകുമാരിതന്നെ പോകുവാണെങ്കിൽ നമുക്ക് പാറയുടെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ വിവേകാനന്ദ പാറയിലൊക്കെ നിൽക്കുക കയറുക എന്നതൊക്കെ നമ്മൾക്ക് അതൊരു അനുഭവാണ് വേള അതുപോലെ വേളാങ്കണ്ണി വേളാങ്കണ്ണിയില് പോയാലും മറ്റ് പറ്റും ഓരോരോ പിന്നെ മലയാറ്റൂര് ഇപ്പോഴൊക്കെ മലയാറ്റൂര് പോയിക്കഴിയുമ്പോഴേക്ക് ആ കുന്ന് കയറുന്ന സമയത്ത് ഉള്ള ഒരു ഒരു അനുഭൂതി ഒരു ആനന്ദം ആൾക്കാരെ എല്ലാം ഒന്നിച്ച് കാണാനും എല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണവിടെ അതുപോലെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ പ്രത്യേക പ്രത്യേക അനുഭൂതികളുണ്ട് കാണുന്നതിൻ്റെ അത് ഇപ്പം ഈവൻ തിരുവനന്തപുരത്ത് തന്നെ മൃഗശാലയിലും അതുപോലെ ഇപ്പോൾ കോവളം ബീച്ച് അതുപോലെയൊക്കെ അവിടെയൊക്കെ പോയി തിരിച്ചു വരുമ്പോളത്തെക്ക് വിമാ ഇത് മറ്റേ എയർപോർട്ടിൻ്റവിടെ എല്ലാം കാണുന്നതും ആ ആ പ്രദേശമൊക്കെ നല്ല സൗന്ദര്യമുള്ള പ്രദേശമാണ് അങ്ങനുണ്ട് അത്പോലെ തന്നെ പല പല ഓരോ ഓരോ സ്ഥലത്താണെലും ഓരോ ഡിസ്ട്രിക്ടിലും ഓരോ അതിൻ്റെതായ അനുഭൂതികളുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ യാത്രയിൽ ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്നതും യാത്ര ചെയ്യുന്നതും എല്ലാംകൊണ്ടും നല്ലൊരു അനുഭവം തന്നെയാണ് പിന്നെ നമുക്ക് പർവ ഇത് ചരിത്ര സ്ഥലങ്ങള് കാണുന്നതെന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക അനുഭവമാണ് അതൊക്കെ പഠിക്കേണ്ടതും നമുക്ക് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കാണാത്തവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര അനുഭവമാണ് ഈ ചരിത്ര സ്ഥലങ്ങൾ കാണുന്നത് ചരിത്ര സ്ഥലങ്ങള് എന്ന് പറഞ്ഞാല് പ്രത്യേക ഒരെ ഒരു ബിംബ പഴയ പിന്നെ ബിംബങ്ങളും അതും ഇതും എല്ലാം നമ്മൾ കാണാൻ ഒരു ഒരു അനുഭൂതി ഉണ്ടാവും അത് അത് നമുക്ക് നമ്മള് പഠിക്കേണ്ടത് തന്നെയാണ് അതൊക്കെ അപ്പോൾ അതിനകത്തെ അത് ആൾക്കാര് ഇഷ്ടപ്പെടണം അത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങള് പോകുന്നത് ഒരു നല്ലൊരു അനുഭവമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതാണ്